ഞാൻ ആമസോണിൽ നിന്നാണ് ഹോം തിയെറ്റർ ഓർഡർ ചെയ്തത് ഒരു പിന്നെ ഓഫ് ഉണ്ടായി ഓഫർ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ് പക്ഷെ എനിക്ക് ഹോം തിയെറ്റർ നല്ലതായിട്ട് തോന്നിയില്ല നമ്മൾ വീട്ടിൽ വെച്ച് അത്ര വോളിയം കുറവാണ് ഹോം തിയെറ്ററിന് എനിക്ക് എന്തൊക്കെയോ ഒരു കുഴപ്പം പോലെ ഞാൻ ലേറ്റ് ആയിരുന്നു അവർ കൊണ്ട് വരാൻ തന്നെ ലേറ്റായി പിന്നെ ഒരു മാതിരി പാക്കിങ്ങ് സുഖം ഉണ്ടായിരുന്നില്ല നമുക്ക് കിട്ടിയപ്പം പിന്നെ വലിയ സൗണ്ടില്ല കോളിറ്റി ഭയങ്കര കുറഞ്ഞ പ്രൊഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്